ഹലോ ആ എന്തായിരുന്നു അതെ എത്ര ദിവസമായി തുടങ്ങീട്ട് ഓക്കെ നീ മഴ എന്തെങ്കിലും കൊണ്ടായിരുന്നോ ഓക്കെ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഓക്കെ ആ ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജലദോഷം തൊണ്ടവേദന ചുമ കഫക്കെട്ട് ഓക്കെ ഞാൻ പിന്നെ ഇപ്പം ഒരു മൂന്ന് ദിവസത്തേക്ക് പനീൻ്റെയും ജലദോഷത്തിൻ്റെയും ചുമേന്റേം ഒക്കെ മരുന്ന് എഴുതാ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ പിന്ന നമുക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം

ആ പറഞ്ഞോളൂ ആ ഇപ്പം പനിയായതുകൊണ്ടാ പക്ഷേ ഉള്ളിലൊരു ക്ഷീണം പോലെ ഉണ്ടാവും അപ്പം ഇപ്പം തൽക്കാലം രണ്ട് മൂന്ന് ദിവസം പൊടിയരി കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കഴിച്ചാൽ മതി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനത്തെ ഫുഡ് കഴിക്ക പിന്നെ ചൂടോടെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക തണുത്തതൊന്നും കഴിക്കണ്ട നന്നായി ചൂടുവെള്ളം കുടിക്ക പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കില്ലേ ആവി പിടിച്ചാൽ കഭക്കെട്ടിനൊക്കെ നല്ലതാണ് അപ്പം ഒരു രണ്ട് നേരം എങ്കിലും ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക ആ അത് കുഴപ്പം ഇല്ല അപ്പം ഇനി കഴിക്കണ്ട ഇനി ഈ മരുന്നൊന്ന് കഴിച്ച് നോക്കാ പനീൻ്റെ എഴുതീട്ട്ണ്ട് ചുമേൻ്റെ എഴുതീട്ട്ണ്ട് പിന്നെ ജലദോഷത്തിനുളളതും എഴുതീട്ട്ണ്ട് മേല് വേദന പനി ഉള്ളതുകൊണ്ടാ അത് ഇപ്പം മരുന്ന് കഴിക്കുമ്പം കുറച്ച് ദിവസം കഴിയുമ്പം അത് കുറഞ്ഞോളും വേറെ വോമിറ്റിംഗ് ടെൻഡൻസി എന്തെങ്കിലും ഉണ്ടോ ഛർദ്ദിക്കാൻ വരൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഞാൻ വിശപ്പിനുള്ള ഒരു മരുന്നും കൂടെ എഴുതാട്ടോ പിന്നെ മേൽ വേദനയ്ക്കുണ്ടല്ലോ

മേല് വേദന ഒന്ന് നന്നായി കുളിക്ക നല്ല ചൂട് വെള്ളം ഒക്കെ എടുത്തിട്ട് കുളിക്കുമ്പം കുറച്ചൊരു ഇതുണ്ടാവും ഈ നമ്മൾ ഈ പനിക്ക് പനിക്കുമ്പം ഉണ്ടല്ലോ ബോഡി ഒക്കെ വളരെ വീക്ക് ആകും അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അതൊന്ന് റെഡിയാവും മരുന്നൊക്കെ കുടിച്ച് കഴിയുമ്പം രണ്ട് ദിവസം കൊണ്ട് ഓക്കെ എന്നാൽ ഇനിയും കുറഞ്ഞില്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പം നമുക്ക് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാ കേട്ടോ